ഓഡറ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു പക്ഷെ ഈ പേയ്മെൻറ്റ് സംഭവം കുറച്ചു വിഷയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഞാൻ അങ്ങോട്ട് അക്കൗണ്ടില് എൻ്റെ എൻ്റെ എന്നാൽ ആക്കൗണ്ടിൽ നിന്ന് പൈസ അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് ഏതാ ഈ പറഞ്ഞത് എന്നെ വിളിച്ചും പറഞ്ഞത് പൈസ അവിടെ ചെന്നിട്ടില്ലെന്നാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിട്ടുണ്ടായിരുന്നു ഒർഡർ കിട്ടിയപ്പം ആ രീതിയില് എൻ്റെ അക്കൗണ്ടിൽ പൈസ പോയിട്ടുണ്ട് പക്ഷെ അവിടെ പറഞ്ഞുതന്നത് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് അവരത് പിന്നെ എന്നതാ പറഞ്ഞത് എസ്റ്റിമേറ്റ് എടുത്ത് വരാൻ പറഞ്ഞുവെന്ന് അതിനുള്ള സമയമൊന്നും എനിക്കില്ല കാരണം എൻ്റ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയ സംഭവം ആ ഡെലിവറി ബോയിയെ ഞാൻ കാണിച്ചതാണ് പിന്നെ അവിടെ നിന്ന് വന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റ ചോദ്യമല്ല എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ പൈസ പോയിട്ടുണ്ട് പിന്നെ തിരിച്ചുവരുവാണെങ്കിൽ അതിനർത്ഥം അങ്ങനാണെങ്കിൽ എന്തായാലും ഞാൻ തിരിച്ച് തന്നേക്കാം പിന്നേ അയച്ചേക്കാം ആ അക്കൗണ്ട് വഴി പിന്നേയും അയച്ചേക്കാം എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ആ ഡെലിവ ഡെലിവറി ബോയിയുടെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേയുടെ സംഭവെമി മെടുത്തിട്ട് സ്കാൻ ചെയ്തിട്ട് ഞാൻ ആ പൈസ അയച്ചിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട് അവിടെ വരുവോ വരാതിരിക്കുകയോ അത് നിങ്ങളുടെ ബാങ്കിൻറ്റെ വിഷയമായിരിക്കും ഞാനിനി എസ്റ്റിമേറ്റും ബ് ബ് ബാങ്കിൽ പോയി കുത്തിയിരുന്ന് എൻ്റെ ദ് ത് ഞാൻ കുറെ ഗൂഗിൾ പേയെല്ലാം ചെയ്തതാണ് ഇനി ഞാൻ എൻ്റെ പാസ്സ്ബുക്ക് എടുത്തിട്ട് ഇത് അടിച്ചു വരുമ്പോൾ സമയം ഒത്തിരിയാകും ആ അത്തരം ഭ്രാന്തൊന്നുമില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നാൽ നോക്ക് ഇല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുകയോ ഈ നമ്പറാണ് എൻ്റെ ഇപ്പോൾ ഈ വിളിക്കുന്ന നമ്പറാണ് എൻ്റെ ആ നമ്പറിൽ വിളിച്ചിട്ട് കാര്യം പറയുക അത് ചെയ്യാനെങ്കിലും പറ്റുമോ അപ്പോൾ ഞാൻ പൈസ തരാം ഓക്കേ